ഇൻഡ്യയിലെ ഗതാഗതമെന്ന് പറയുമ്പോൾ സാധാരണ ഇൻഡ്യയിൽ വരുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾക്ക് റോഡ് ട്രൻസ്പോട്ട് ഉണ്ട് ട്രെയിനുണ്ട് ഇൻഡ്യൻ റെയിൽവേ ഉണ്ട് അതായത് മെട്രോ സംവിധാനമുണ്ട് എയർപോട്ട്സ് സംവിധാനമുണ്ട് വാട്ടർ പ്രോൺസ് വാട്ടർ ട്രാൻസ്പോർട്ട് സംവിധാനം ഉണ്ട് ഇപ്പോൾ ഒത്തിരി സംവിധാനങ്ങൾ നിലവിലുണ്ട് ഇപ്പോൾ ഏറ്റവും അതിന് അകത്ത് ഏറ്റവും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മെട്രോയാണ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എപ്പം ട്രെയിൻ ടൈമിനെ കാട്ടിയും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് എത്തുന്നതും എപ്പോഴും ഓൾ നമ്മൾക്ക് മെട്രോ ആണ് പിന്നെ വളരെ റേറ്റ് കുറവാണ് പിന്നെ ഏറ്റവും മെയിനായിട്ട് നമ്മൾക്ക് പെട്ടെന്ന് അങ്ങ് എത്താം പിന്നെ ഏത് ചൂട് സമയത്ത് ഇതിൻ്റെ അകത്ത് നല്ല തണുപ്പാണ് നല്ല എ സി ആണ് അതിൻ്റെ ഏറ്റവും യാത്രാ സൗകര്യം വളരെ മെച്ചപ്പെട്ടതാണ് ഇനി ഇൻഡ്യയിൽ തന്നെ ഇൻഡ്യ സ്റ്റേറ്റ് ആയിക്കഴിഞ്ഞാൽ കേരളത്തിലാണെങ്കിൽ റോഡ് ട്രാൻസ്പോർട്ട് വളരെ മോശമാണ് പിന്നെ ഇൻഡ്യൻ റെയിൽവേ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻ്റ് ചെയ്യുന്നത് പിന്നെ റോഡാണെങ്കിൽ വളരെ കുണ്ടും കുഴിയും നിറഞ്ഞാണ് വഴിയിൽ കിടന്നു പോയാൽ അവിടെ കിടക്കും പിന്നെ കുറച്ച് ഒക്കെ ഇപ്പം ഈ കേരളത്തിൽ വന്നതിൻ്റെ മെട്രോ സംവിധാനമുള്ള ഏക ജില്ല എന്നു പറഞ്ഞാൽ എറണാകുളം മാത്രമേ ഉള്ളു അതും വളരെ കുറവാണ് പിന്നെ പിന്നെ അവിടെയുള്ള ആൾക്കാർക്ക് കുറച്ചു എന്താണ് ഗതാഗത കുരുക്ക് മാറി കിട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു വലിയ ഒരു വളരെ സിറ്റിയാണ് പിന്നെ എറണാകുളം സിറ്റി അപ്പോൾ ആൾക്കാരൊക്കെ അങ്ങനത്തെ ഒരു വേഷത്തിൽ തിരുവന്തപുരം ക്യാപിറ്റൽ സിറ്റിയായിട്ടുള്ള തിരുവനന്തപുരത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞ അത് പറഞ്ഞാൽ ഗതാഗത കുരിക്ക് രാവിലെ സ്കൂളിംഗ് ടൈം ആയാലും ഓഫീസ് ടൈം ആയാലും ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ എത്താനൊക്കെ നമ്മൾ വളരെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് അതായത് ഒരു മേൽപ്പാല സംവിധാനമൊക്കെ വളരെ കുറവാണ് ഇവിടെ ഉള്ളത് എന്നാലും നമ്മൾ പിന്നെ അങ്ങ് ജീവിച്ച് പോകുന്നുണ്ട് പിന്നെ എല്ലാവരും ഓട്ടോ സംവിധാനവും ഒക്കെ തന്നെയാണ് എടുക്കുന്നത് പിന്നെ തിരുവനന്തപുരത്തു നിന്ന് നമ്മൾക്ക് മറ്റുള്ള ജില്ലകളിലേക്ക് സൗകര്യാർത്ഥം പോകാൻ ഏറ്റവും നല്ലത് ഇൻഡ്യൻ റെയിൽവേ തന്നെയാണ് ഇപ്പോൾ തിരുവന്തപുരം കാസർക്കോട് വരെ നമ്മൾക്ക് ട്രെയിനുണ്ട് അത് തന്നെയാണ് നമ്മൾ പോകുന്ന ബസിനേക്കാളും കൂടുതൽ യാത്ര കംഫേർട്ടബ്ളും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ എത്തുന്നത് നമ്മുടെ ഇൻഡ്യൻ റെയിൽവേ തന്നെയാണ് അത്കൊണ്ട് എല്ലാവരും അതിന് അകത്തു തന്നെയാണ് പോകുന്നതും അത് തന്നെയാണ് ആൾക്കർ ആശ്രയിക്കുന്നതും അതാണ് സേഫ്